കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പാരമ്പര്യങ്ങളും ആചാരങ്ങളും എന്തൊക്കെയാണെന്ന് പറയുന്നതിനു മുൻപ് കേരളത്തിൽ എ സാംസ്കാരികത വളരെയും വളരെ അനിവാര്യമായ കാര്യമാണ് കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കേരളത്തിലെ പല ആചാരങ്ങളും അനുഷ്ടാനങ്ങളും നമ്മൾ അനുഷ്ഠിച്ചു വരുമ്പോഴാണ് അതിൻ്റെ കേരളത്തിൻ്റെതായൊരു മഹത്വം നമ്മൾക്ക് ദർശിക്കാൻ കഴിയുന്നത് കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പുതിയ രീതിയിലുള്ള സംസ്കാരികതയുമായിട്ട് നമുക്ക് ഒത്തൊരുമയോടെ പോകാൻ പറ്റത്തില്ല പക്ഷെ എന്നിരുന്നാണെങ്കിലും നമ്മൾ കേരളത്തിലുള്ള സാംസ്കാരികതയെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് വളരെ വളരെ അനിവാര്യമായ കാര്യമാണ് അതിൽ തന്നെ വരുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കഥകളി നമുക്ക് എടുക്കാൻ പറ്റും കഥകളി ഒക്കെയെന്ന് പറയുമ്പോഴത്തേനും ഒരു ഒരു കത്തി വേഷവും അതിൻ്റെതായൊരു ഭാവവും അതിൻ്റെയെതായ മുഖത്തില് മുഖത്തിൽ വരുന്ന ഭാവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ആ ഒരു പ്രാധാന്യത്തോടെ അവരത് നിറവേറ്റുകയും ചെയ്യുന്നൂണ്ട് അതിൻ്റെതായ വേഷഭൂഷങ്ങളും ആചാരങ്ങളും അനുഷ്ടാനങ്ങളും അതിൻ്റെതായ കലാവാസനയും അതിൽ കാണാൻ കഴിയുന്നതാണ് നമ്മള് കഥകളി എന്ന് പറയുന്നത് കത്തി വേഷവും പിന്നെ വരുന്നത് മോഹിനിയാട്ടം മോഹിനിയാട്ടമെന്ന് പറയുമ്പോൾ ഒരു മോഹിനിയായി തൻ്റെ തൻ തൻ്റെ തൻ്റെ ഒരു ഒരു സാംസ്കാരികത വസ്ത്രവും ഉപയോഗിച്ച് ഒരു നൃത്തച്ചുവടുകൾ വയ്ക്കുന്നതാണ് മോഹിനിയാട്ടമെന്ന് പറയുന്നത് പിന്നെ കൂടിയാട്ടം വരുന്നത് കൂടിയാട്ടമെന്നു പറയുമ്പോഴത്തേനും ഒരു ഒരു കലാവസനയാണ് ആ കലാവാസനയെ അവർ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുമുണ്ട് പിന്നെ വരുന്നത് തെയ്യം തെയ്യമെന്ന് പറയുന്നത് അതും ഒരു കലാരൂപം തന്നെയാണ് ആ കലാരൂപത്തിൽത്തന്നെ കൂ അത് കലാരൂപത്തിൽത്തന്നെ കുറേ വാസനകളും കുറേ കാര്യങ്ങളും അതിൽതന്നെ നമുക്ക് കാണാൻ കഴിയും ചാക്യാർകൂത്ത് കോലുകളി കോലുകളി എന്നു പറയുന്നത് പരസ്പരം അങ്ങോട്ട് കോലിട് കോല് കളിച്ച് അതിൻ്റെതായൊരു രീതിയില് സന്തോഷിച്ച് സമാധാനത്തോടെ അർപ്പിക്കുന്ന ഒരു ഒരു ക ഒരുതരത്തിലുള്ളൊരു ബാ ഒരു രീതിയിലുള്ളൊരു കളിയാണ് കോലുകളി എന്നു പറയുന്ന ഓട്ടൻതുള്ളൽ തൻ്റെ കലാവാസന ഉപയോഗിച്ച് തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് അത് നേടിയെടുക്കാൻ ഉള്ളൊരു കഴിവുംകൂടെ കാണിക്കുന്നുണ്ട് ആറന്മുള വള്ളംകളി അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കലാ ആചാര രൂപമാണ് അതിന് ഒരു അതിൻ്റെതായ ഓ പ്രതേകതകളുണ്ട് അതിൻ്റെതായ പോരായ്മകളുണ്ട് എന്തിരുന്നാണെങ്കിലും കലാവാസനയായതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ നമുക്ക് അതിനെ തെരഞ്ഞെടുക്കാവുന്നതേയുള്ളു ഒപ്പന എന്ന് പറയുന്നതാണ് അടുത്ത ഒരു കലാവാസന എന്നു പറയുന്നത് കാരണം ഒപ്പന എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു പെൺകുട്ടി തൻ്റെ വിവാഹം കഴിക്കുന്ന ദിവസം തൻ്റെ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി നിന്ന് ആ ഒരു ആ ഒരു കലാരൂപത്തെ ആസ്വദിക്കുകയും അത് മറ്റുള്ളവരില് പ്രദർശിപ്പിക്കുകയും ആ മറ്റുള്ളവരിൽ കൂടുതലായിട്ടും എ ഒരു ഒരു ഒരു രീതിയിലത് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് തിരുവാതിര കളി അത് അടുത്തൊരു വലിയൊരു പ്രധാനപ്പെട്ട കലാരൂപമാണ് കാരണം തിരുവാതിര നമ്മൾ കളിക്കുമ്പോൾ നമ്മള് ന നടുക്കൊരു വിളക്കും വെച്ച് നമ്മൾ അതിനുവേണ്ടിത്തന്നെ ആസ്വദിക്കുവാനും അതിൻ്റെ കൂടെ ആടാനും പാടാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയൊരു വലിയൊരു മഹത്തായ കാര്യമാണ് അപ്പോള് ഇതാണ് കേരളത്തിലെ സാംസ്കാരിക പാരമ്പര്യ ആചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചതിനുള്ള മറുപടി